ആശുപത്രിയിൽ പിന്നെ അധികം നല്ല ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ തീരെ വയ്യ എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെയാണ് ആശുപത്രിയിൽ പോവാറുള്ളത് അല്ലാത്ത അല്ലാത്തപ്പം പിന്നെ ഹോമിയോ കാണിക്കാറുണ്ട് ഹോമിയോ ആകുമ്പോൾ മരുന്നിനൊക്കെ ഡോസ് കുറവാണ് പിന്നെ കഴിക്കാനും ബുദ്ധിമുട്ടില്ല പിന്നെ ഇങ്ങനെ ഉള്ള ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പോകാറുണ്ട് നല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ഇംഗ്ളീഷ് മരുന്നിനെ ആശ്രയിക്കാറുള്ളൂ ഹോമിയോ ആണ് കൂടുതൽ എനിക്ക് നല്ലത് തോന്നിയത് പിന്നെ വീട്ടിൽ ചുമക്കുമ്പോൾ ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ് വാട്ടി പിഴിഞ്ഞ് കഴിക്കാറുണ്ട് പിന്നെ വയറ് വേദനയൊക്കെ വരുമ്പോൾ ഉലുവ വറുത്തത് ഉലുവ പാത്രത്തിലിട്ട് വറുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കുടിക്കാറുണ്ട് പിന്നെ ചുമയൊക്കെ വരുമ്പോൾ ആടലോടകവും ഒക്കെ വറുത്ത് പൊടിച്ച് അരിപ്പൊടി ഒക്കെ കൂട്ടി വറുത്ത് ഇങ്ങനെ കുപ്പികളിൽ ആക്കിവെക്കും ജീരകം കൽക്കണ്ടം ഒക്കെ പൊടിച്ച് കുപ്പികളാക്കി വെക്കും അതൊക്കെ കഴിക്കാറുണ്ട് ചെറിയ ചെറിയ പിന്നെ പനി വരുമ്പോൾ തുളസിൻ്റെ ഇലയും ചുക്കും

പിന്നെ കാലിന് ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെള്ളം തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ഇങ്ങനെ ആശുപത്രിക്ക് അങ്ങനെ പോവാറില്ല നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴൊള്ളൂ ഹോസ്പിറ്റിലേക്ക് പോവുക